എൻ്റെ പ്രദേശത്തെ ആശുപത്രികളിലൊക്കെ സാങ്കേതിക പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് ജില്ലയെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് ഹോസ്പിറ്റൽ തന്നെ നിലവിലുണ്ടല്ലോ ഇപ്പം ബേബി മെമ്മോറിയൽ ആയിക്കോട്ടെ മിംസ് ആയിക്കോട്ടെ അതുപോലെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും അധികം പിന്നെ ഇപ്പോൾ സാധാരണക്കാരുടെ കയ്യിലൊന്നും പൈസ ഒന്നും നമ്മുടെ സേവിങ്സിൽ ഒന്നും ഉണ്ടാവില്ലലോ അപ്പോൾ അവർക്കൊരു പിന്നെ ഒരു തളർച്ച ഒരു തളർച്ച ഇപ്പം അവർക്ക് ഒരു പിന്നെ പൈസ ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ അവിടെ എന്തൊരു ഏതൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ അപ്പം അധികം പൈസ ആവില്ല അതുപോലെത്തന്നെ അവർക്ക് അവരുടെ അവരുടെ കയ്യിൽനിന്നു ഒരു അവരുടെ കയ്യിൽനിന്നു പൈസ എടുത്ത് മരുന്നിനാണെങ്കിലും അത്യാവശ്യം വലിയ പൈസ ഒന്നും ആവില്ല ഇപ്പം മിംസ് അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അവർ പ്രൈവറ്റ് ആയതുകൊണ്ടുത്തന്നെ അവിടെ അത്യാവശ്യം ഇപ്പോൾ ഒരു രണ്ട് ദിവസം കിടക്കുന്നതാണെങ്കിൽ തന്നെ പത്ത് ഇരുപത്തയ്യായിരം രൂപ തന്നെ ആകും അപ്പം അത് സാധാരണക്കാരെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊന്നും താങ്ങാനാവില്ല അപ്പോൾ അവർക്കൊരാശ്വാസം മെഡിക്കൽ കോളേജ് ഉള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് അപ്പം അവിടെത്തന്നെയാണെങ്കിലും അത്യാവശ്യം സാങ്കേതിക വിദ്യ എല്ലാം തന്നെയുണ്ട് സാങ്കേതിക പുരോഗതിയുണ്ട് ഇപ്പോൾ അവിടെ ഓരോ സെക്ഷൻ ആയിട്ട് ഓരോരുത്തർക്ക് എന്താ ആവശ്യം അതുതന്നെ അതവിടെ നിലവിൽത്തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ജില്ലയിൽ ആശ്രയിക്കാനോ അങ്ങനെയൊന്നും പോകേണ്ടി വരുന്നില്ല ഇവിടെത്തന്നെ അത്യാവശ്യം ഹോസ്പിറ്റലുകളും അത്യാവശ്യം പിന്നെ ഫെസിലിറ്റികളും എല്ലാം നിലവിൽ ആശുപത്രികളിൽ ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രയോജനം അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്നു തന്നെ മറ്റുള്ള ജില്ലകളിൽ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടണം എന്നില്ലലോ നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ആയിക്കോട്ടെ പെട്ടെന്ന് ചെന്നാൽ അവിടെത്തന്നെ എല്ലാ ശുശ്രു ശുശ്രൂഷകളും നൽകുന്നും ഉണ്ട് അതുപോലെത്തന്നെ എല്ലാം ഇപ്പോൾ ഓപ്പറേഷൻ ആയിക്കോട്ടെ എന്താണെങ്കിലും ആയിക്കോട്ടെ അവിടെത്തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടെത്തന്നെ ചെയ്യാവുന്നതും ആണ്